അതായത് ഇപ്പോൾ നമ്മൾ ജോലിസ്ഥലത്ത് ആകുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ക്യാരക്ടർ തന്നെ മാറ്റേണ്ടി വരും അതായത് നമ്മക്ക് ജോലിസ്ഥലത്ത് ഉള്ളവരുടെ ക്യാരക്ടറുമായിട്ട് യോജിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരിക അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ നമുക്ക് ദേഷ്യം വന്നാൽ നമുക്ക് അവരോട് ദേഷ്യപ്പെടാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മള് നമ്മളെ തന്നെ നിയന്ത്രിക്കേണ്ടി വരുന്നു അതുപോലെത്തന്നെ നമ്മളവരുമായി യോജിച്ച് മുന്നോട്ട് പോവേണ്ടി വരുന്നു അവരുടെ അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് അതുപോലെ ചെയ്യുക അങ്ങനെയൊക്കെ നമ്മള് മുന്നോട്ട് പോകേണ്ടി വരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആയിരിക്കില്ല നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കുണ്ടാവുക കാരണം നമ്മുടെ വീട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ അവരുമായിട്ട് നമുക്ക് നമുക്ക് വഴക്ക് കൂടാം അതുപോലെത്തന്നെ നമുക്ക് അടി ഉണ്ടാക്കാം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അവരോട് ഡയറക്റ്റായിട്ട് പറയാം അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷെ ജോലി സ്ഥലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അല്ല അവരെ അവര് നമ്മളെ നമ്മുടെ തൊഴി നമ്മുടെ അതേ സെയിം ഉള്ള ഇത് അവരായിരിക്കും അതായത് നമ്മളിപ്പോൾ അവരെ മനസിലാക്കി അവരുടെ കൂടെ നിന്ന് പോവണം അവരിപ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ അവര് അവരുടെ ക്യാരക്ടറുമായിട്ട് നമ്മള് യോജിച്ച് മുന്നോട്ട് പോയി നമ്മള് നമ്മുടെ കാര്യങ്ങള് നോക്കി ഇതാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്